കുട്ടികള്ക്ക് ക്രമമായി സ്കൂളില് പോകാന് കഴിയാത്തതിന്റെ കാരണങ്ങള് പലതുണ്ട് എങ്കില്പ്പോലും ഇന്ന് കുട്ടികള് നേരിടുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷ് ഒരുപക്ഷെ അസൗക യാത്രാ അസൗകര്യങ്ങള് തന്നെയായിരിക്കാം കാരണം ആണ് കാരണം സ്കൂളില് സ്കൂളില് വിദ്യാഭ്യാസം സ്കൂളല്ലെങ്കിലേത് വിദ്യാഭ്യാസ സ്ഥാപനവും ഇന്ന് അവിടെ ഒരു ഒരു പരിധി കഴിഞ്ഞാല് അതായത് നമ്മളിപ്പം പത്താം ക്ലാസ് വരെ നമ്മടെ സ്കൂളിന്റെ അട്ത്ത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളിലായിരിക്കും നമ്മള് പഠിക്കേണ്ടത് പഠിക്കുന്നത് അതിന് ശേഷം വരുന്ന പ്ലസ് വണ് പ്ലസ് ടു അല്ലെങ്കില് ഹയര് സ്റ്റഡീസ് ഇങ്ങനെ ഉള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികള്ക്ക് വരുമ്പോള് അത് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത സ്കൂളുകളില് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികള്ക്ക് വളരെ ദൂരെ സ്ഥലങ്ങളിലോ അല്ലെങ്കില് നമ്മുടെ നമ്മുടെ ജില്ല വിട്ടോ ഒക്കെ പോയി പഠിക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെയുള്ള സമയങ്ങളില് നമ്മളുടെ കുട്ടികള് ഇന്ന് ഇന്ന് നമ്മളുടെ വീട്കളില് പോലും സുരക്ഷിതരല്ല എന്നിരിക്കെ നമ്മളുടെ കുട്ടികളെ മറ്റ് സ്ഥലങ്ങളില് പറഞ്ഞ് വിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും പേരന്സിന് ഒരു വലിയ കീറാമുട്ടി തന്നെയാണ് കൊച്ച് കൊച്ച് പ്രായത്തില്ത്തന്നെ വലിയ സ്കൂളുകളില് വല് അതായതിപ്പം ദൂരെയുള്ള സ്കൂളുകളില് പോയി പഠിക്കേണ്ടി വരുന്നത് അപ്പോഴുണ്ടാകുന്ന യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകള് അതുപോലെ പലപ്പോഴും വീട്ടില് വീട്ടില് ഉണ്ടാകുന്ന വീട്ടില് പഠനവുമായിട്ടോ അല്ലെങ്കില് മറ്റ് കാരണങ്ങളോ കൊണ്ടോ ഒക്കെ ഉണ്ടാകാന് ഇടയുള്ള സാഹചര്യങ്ങള് പിന്നെ കാലാവസ്ഥ പിന്നെ സാമ്പത്തിക അവസ്ഥ ഇതൊക്കെ കുട്ടികളെ ഉള്ള പഠനം പഠനത്തെ വളരേയധികം ബാധിക്കുന്ന ഒന്നാണ് ഇന്നത്തെ കുട്ടികള് എല്ലാവരും തന്നെ സാക്ഷരത സാക്ഷര അത് നേടിയെന്ന് പറയുന്നുണ്ടെങ്കില്പ്പോലും അവര്ക്ക് കിട്ടുന്ന പഠനത്തില് എന്തുമാത്ര അവര് മൂല്യം ഉള്ക്കൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ഒരു കാര്യം കൂടി നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നം എല്ലാ എല്ലാ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളും എല്ലാ എല്ലാ ഡെവലപ്പ്മെൻറ്റും ഉള്ക്കൊണ്ട് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന്റെ പാഠ്യ പദ്ധതികള് ഇന്ന് വിദ്യാഭ്യാസത്തിൽ പാഠ്യ പദ്ധതികള് ക്രമീകരിച്ചിട്ടുള്ളത് എങ്കില്പ്പോലും നമ്മുടെ കിട്ടികള്ക്ക് ആ ഓരോ തരത്തിലുള്ള അവസരങ്ങളും അല്ലെങ്കില് ഡെവലപ്മെൻറ്റും ലഭിക്കണമെങ്കില് ആദ്യം അവര്ക്ക് അതിൻറ്റേതായ സാഹചര്യങ്ങളില് സാഹചര്യങ്ങളില്ക്കൂടി കടന്ന് പോയെങ്കില് മാത്രമേ അങ്ങനെയുള്ള ഒരു അവസ് അങ്ങനയുള്ള ഒരു നേട്ടം കൈവരിക്കാന് കഴിയികയുള്ളു എന്നൊള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ കുട്ടികള് എല്ലാ അര്ത്ഥത്തിലും പല തരത്തിലുള്ള ഭീഷണികള് നേരി നേരിട്ട് കൊണ്ടാണ് ഇന്ന് വളര്ന്ന് വരുന്നത് എന്നുള്ളത് നമ്മള് മനപൂര്വ്വമായിട്ടാണെങ്കിലും മറക്കാതിരിക്കുക ഇന്ന് ലഹരിക്കും മറ്റ് മറ്റും മറ്റ് ദൃശ്യ ദൃശ്യ വീഷണങ്ങള്ക്കും അകപ്പെട്ട ഒരു ലോകത്ത് നമ്മുടെ കുട്ടികള് എപ്പോഴും സുരക്ഷിതരായിട്ട് കഴിയണമെന്നുണ്ടെങ്കില് അത് എപ്പോഴും പേരന്സിന്റെ ശ്രദ്ധ അവര്ക്ക് കിട്ടുന്ന ഒരു അകലം മാത്രമാണെങ്കില് അവര്ക്ക് പേരന്സിന് ശ്രദ്ധിക്കാനും അവര്ക്ക് പേരന്സിനവരെ ശ്രദ്ധിക്കാനും അവര്ക്ക് പേരന്സില് നിന്ന് ലഭിക്കേണ്ട ആ ലഭിക്കേണ്ട ലാളനയും പരിഗണനയും ലഭിക്കുകയും ചെയ്യണമെങ്കില് എപ്പോഴും കുട്ടികള് നമ്മളുടെ കണ്മുമ്പില്ത്തന്ന അല്ലെങ്കില് നമ്മളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ നിന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ടുതന്നെ നമ്മുടെ കുട്ടികളെപ്പോഴും ക്രമമായി സ്കൂളില് പോകാന് കഴിയാത്തതിന്റെ കാരണങ്ങള് ദൂരവും യാത്രാ അസൗകര്യങ്ങളും വീട്ടില് സഹായിക്കേണ്ടി വര്ന്നതും അതുപോലെ കാലാവസ്ഥ കാലാവസ്ഥയെന്നുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയാണ് കാലം തെറ്റിയ കാലവസ്ഥയാണ് ഇപ്പോള് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ് പിന്നെ മനുഷ്യന് സാമ്പത്തികം സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങള്ക്ക് കുടുംബങ്ങളില് നല്ല ബുദ്ധിയും അതുപോലെ കഴിവുമുള്ള കുട്ടികള്ക്ക് വിദ്യാഫ്യാസം ചെയ്യാനും തക്ക സാഹചര്യങ്ങളില്ലാതെ വിഷമിക്കുന്ന എത്രയോ എത്രയോ കുട്ടികള് നമുക്ക് കണ്മുമ്പിലുണ്ട് എല്ലാ ഇതെല്ലാം കുട്ടികള്ടെ ക്രമമായെ സ്കൂളില്പ്പോകാന് കഴിയാത്തതിന്റെ കാരണങ്ങള് തന്നെയാണ്